ലാപ്ടോപ്പായിരുന്നു ആപ്പിളിൻ്റെ ലാപ്ടോപ്പാണ് എനിക്ക് അറിയില്ല ചാർജ് നിൽക്കുന്നില്ല എന്തൊക്കെയോ ഒരു കംപ്ലൈന്റ് വാങ്ങി ഭയങ്കര പൈസയാണ് നമ്മള് പിന്നെ നല്ല പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ അപ്പോൾ അതിന് പിന്നെ ചാർജ് നിൽക്കുന്നില്ല പിന്നെ ഏന്തൊക്കെയോ ഒരു ഇത് എനിക്ക് ഭയങ്കര ബ്ലററ് ആയിട്ട് തോന്നുന്നു നമ്മുടെ മൗസും നമുക്ക് അങ്ങനെ ഇതാക്കാൻ പറ്റില്ല കീ ബോർഡ് വർക്ക് ചെയ്യാത്ത പോലെയൊക്കെ തോന്നി